ആ പ്രിൻസാ സ്റ്റുഡിയോയല്ലേ ഇത് ബേബി ചേട്ടൻ ആണോ ആ ഞാൻ ഇത് ഇവിടുന്ന് തോപ്രാംകുടിയിൽ കാര്യക്കരയിൽ നിന്നാണ് വിളിക്കുന്നത് അതെ എനിക്ക് അടുത്ത മാസം മൂന്നാം തീയതി ഒരു മാമോദിസ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുക്കുന്ന കാര്യം പറയാനും ഒക്കെയായിരുന്നു വിളിച്ചത് അന്നത്തെ ദിവസം ഫ്രീ ആണോ ആ ഓക്കേ അപ്പം ആ മൂന്നാം തീയതി ആ ഓക്കേ അപ്പം മാമോദിസ ഫംഗ്ഷൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് തലേ ദിവസം ഒരു ചെറിയ ഫോട്ടോഷൂട്ട് കൊച്ചിൻ്റെ നടത്തണം പിന്നെ പിറ്റേദിവസം പള്ളിയിലത്തെ ചടങ്ങുകൾ നടത്തണം പിന്നെ പിന്നെ പാരിഷ് ഹാളിൽ ഫംഗ്ഷൻ ഉണ്ട് അതിൻ്റെയും നടത്താനാണ് ഫോട്ടോ എടുക്കാനുണ്ട്

ആ അതെയതെയതെ പള്ളിയിലെ ഫംഗ്ഷനും എടുക്കണം പിന്നെ അതിനുശേഷം റിസപ്ഷൻ്റെ ഫംഗ്ഷനും എടുക്കണം ഫോട്ടോ എടുക്കണം ആ അപ്പം എത്ര രൂപയാകുമായിരിക്കും ഇത്രം മൊത്തം പാക്കേജ് മൂന്നു ദിവസം തലേദിവസം പിറ്റേദിവസത്തെകുടെ ഇരുപത്തി രണ്ട് ഓക്കേ അത് നമ്മുടെ ആൽബം ആയിട്ട് അത് എത്ര ദിവസത്തിനുള്ളിൽ കിട്ടുമായിരിക്കും ഒരാഴ്ചക്കുള്ളിൽ കിട്ടും നമ്മുടെ ഡിജിറ്റൽ പ്രിൻ്റീങ് ആണോ അതെയോ സാധാരണ ഫോട്ടോ ആണോ ആ ഓക്കെ ഓക്കെ പിന്നെ നമുക്ക് അത് ലാപ്പിൽ സേവ് ചെയ്യാൻ വേണ്ടിട്ട് പെൻഡ്രൈവിൽ തരാൻ പറ്റുമോ ഫോട്ടോസ് എടുത്ത അന്ന് തന്നെ ആ അപ്പം എഡിറ്റ് ചെയ്ത് കുറച്ച് ഫോട്ടോസും തരണം അല്ലാതെ മൊത്തത്തിലുള്ള ഫോട്ടോയും തരണേ ആ ഓക്കെ പിന്നെ പിന്നെ വേറെ എന്തായാലും ഉണ്ടോ ഐ മീൻ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ അവിടെ സാഹചര്യം എന്തെങ്കിലും റൂമ് എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണോ ആ അല്ലെങ്കിൽ അവിടെ നിന്ന് അവിടെ നിന്ന് ഒരു അതായത് നിങ്ങൾ അവിടെ നിന്ന് സ്റ്റുഡിയോയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുകയോ അങ്ങനെ എന്തേലും ചെയ്യുവോ റേറ്റ് കൂടും അപ്പോൾ എത്രയാകുമായിരിക്കും അയ്യോ ഇരട്ടിയോ അത് എന്ത് പരിപാടി രണ്ടായിരം ആണോ ആഹ് രണ്ടായിരം ഓക്കെ അപ്പം നമ്മൾ വേറൊന്നും നോക്കണ്ടല്ലോ സംഭവങ്ങളെല്ലാം കൊണ്ടുവന്നോളും അല്ലേ ഓക്കെ അപ്പോൾ ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഓക്കെ സംഭവങ്ങളെല്ലാം വന്ന് നിങ്ങൾ ഫോട്ടോ എടുത്തു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് പാരിഷ് ഹാളിലെ ഫോട്ടോഷൂട്ടും കഴിഞ്ഞ് പിന്നെ വീട്ടിലും കൂടെ വന്ന് ഒന്നും കൂടെ എടുക്കാൻ പറ്റുമോ ചിലപ്പോൾ വൈകുന്നേരം വരുന്ന ആളുകളുണ്ട് അപ്പോൾ അത് ഈ ഒരു പാക്കേജിൽ ഉൾപ്പെടുമോ അതോ സെപ്പറേറ്റ് ആയിട്ട് പൈസ വേണ്ടി വരുമോ ആ ഓക്കെ ഫുൾ ഡെയ്സ് ഉള്ളത് ഇതിനകത്ത് ഉൾപ്പെടുത്തും അല്ലെ ഓക്കെ അപ്പം എന്നാ രണ്ടാം തീയതി മൂന്നാം തീയതി ആയിട്ട് എൻ്റെ ഡേറ്റ് ഒന്ന് ബുക്ക് ചെയ്തേക്കാവോ ആ ഓക്കെ ആഹ് ആ ഓക്കെ താങ്ക്യൂ താങ്ക്യൂ താങ്ക്യൂ സോ മച്ച് അപ്പോൾ എന്തേലും ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി എൻ്റെ പേര് അമലു എന്നാണ് എന്തേലും ഉണ്ടെങ്കിൽ

ഓക്കേ താങ്ക്യൂ ആ മാറ്റം ഉണ്ടങ്കിൽ മാറ്റമുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞേക്കാം ആ ആ ഓക്കേ താങ്ക്യൂ കഴിഞ്ഞു കേട്ടില്ല